എനിക്ക് എൻ്റെ ഡിജി ലോക്കർ അക്കൗണ്ട് എൻറ്റൊരു കുടുംബാംഗവുമായി എനിക്ക് പങ്കിടണം അപ്പോള് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അതിൻ്റെ പാസ്വേഡ് മാറ്റിയാല് കൊള്ളാമെന്നുണ്ട് സേഫ്റ്റി റീസൺസിനായിട്ട് എനിക്കാ പാസ്വേഡ് ഒന്ന് മാറ്റിയാല് കൊള്ളാമെന്നുണ്ട് ഈ അക്കൗണ്ട് ഷെയര് ചെയ്യുന്നതിന് മുന്നെ അപ്പോള് എന്നെ അതിനൊന്ന് സഹായിക്കണം പുതിയൊരു പാസ്വേഡ് സൃഷ്ടിക്കാൻ എങ്ങനെയാണെന്നെനിക്ക് ഒരു അറിവോ ഉറപ്പില്ല അപ്പോള് ഇത് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കുക നല്ലൊരു വലിയ ശക്തമായ ഒരു പാസ്വേഡ് ഇട്ടാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോള് അങ്ങനൊര് പാസ്വേഡ് എന്താകും നല്ലത് എന്ന് ഒന്ന് പറഞ്ഞ് തരിക ഞാൻ കേട്ടിട്ടുണ്ട് പാസ്വേഡുകൾക്ക് മിനിമം ഒരുപത്തക്കമെങ്കിലും വേമെന്നും പത്ത് നമ്പേസൊ അല്ലെങ്കിൽ ലെറ്റേസൊ പിന്നെ എന്തേലും സ്പെഷ്യൽ ആയിട്ടുള്ള ചിഹ്നങ്ങളോ എല്ലാം വേണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോള് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ഏറ്റവും നല്ല പാസ്വേഡായ്ട്ട് കൊടുക്കാൻ പറ്റുകയെന്ന് ഒന്ന് പറഞ്ഞുതരണം ഇത് ചെയ്യുന്നതിന് മുന്നെ വേറെന്തേലും ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ഒന്നും കൂടി അറിയിക്ക് അല്ലാണ്ട് വേറെന്തേലും നമ്മള് നോക്കാനുണ്ടോ പാസ്വേഡ് ചെയ്യുന്നേന് മുന്നെ വേറെ എന്തേലും ചെയ്യേണ്ടി വരുമോ പാസ്വേഡ് മാറ്റുന്നതിന് മുന്നെ വേറെന്തേലും ചെയ്യേണ്ടി വരുമോ ഉദാഹരണത്തിന് നമ്മുടെ നമ്പര് കൊടുക്കുകയോ അതിലേക്ക് വല്ല ഒ റ്റി പി വരികയോ അങ്ങനെ എന്തേലും ചെയ്യേണ്ടി വരുമോ അതൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ എങ്ങനാണ് ചെയ്യണ്ടേന്നൊന്ന് എനിക്ക് പറഞ്ഞ് തരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഞാനീ അക്കൗണ്ട് എൻ്റെ ബന്ധുവായി പങ്കിട്ടാൽ അതിന് എന്തേലും പ്രശ്നങ്ങളോ സെക്യൂരിറ്റി തലത്തിൽ എന്തേലും പ്രശ്നങ്ങൾ ഇണ്ടാകുമോ ഇല്ലയോന്ന് എനിക്കൊന്ന് പറഞ്ഞ് തരണം അങ്ങനെ ഒന്നും വരത്തില്ല എന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഇങ്ങനെ ഷെയര് ചെയ്യുന്നതിനും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കീ അക്കൗണ്ടൊന്ന് പങ്കിടാനായിട്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസുണ്ടന്നുണ്ടങ്കിൽ ഒന്ന് പറഞ്ഞ് തരിക ഈ പാസ്വേഡ് മാത്രം മാറ്റിയാല് മതിയോ അതോ അല്ലാണ്ട് വേറെന്തേലും ചെയ്യണോന്നുങ്കുണ്ടോ ഈ അക്കൗണ്ട് ഇങ്ങനെ ഷെയര് ചെയ്യുമ്പോള്